അത് നമ്മുടെ ക്യാൻറ്റീൻ്റെ ഓണറല്ലെ ആ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ഞാൻ അവിടെ ഞാൻ അവിടെ വന്നൊരു കസ്റ്റമറാണ് ആ ഓക്കെ ഞാനെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫാമിലിയും അപ്പോൾ നമ്മളോടർ ചെയ്തത് ചായയും ദോശയുമായിരുന്നു അത്യാവശ്യം നല്ല ഫുഡാവും എന്നുള്ള രീതിക്കാണ് നമ്മൾ കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു ടേബ്ൾ ടേബിളാണ് നിങ്ങൾ ക്ളീൻ ചെയ്യാറില്ലേ ടേബ്ളും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം കസ്റ്റമേഴ്സ് വരുമ്പോൾ അത് ക്ളീനിങ്ങ് സെക്ഷൻന്ന് പറഞ്ഞിട്ടാണെന്ന് ഉണ്ടെങ്കിലും ആളുകൾ ഒന്ന് കഴിച്ച് പോയതെങ്കിലും ക്ളീൻ ചെയ്തിടണ്ടേ ഒന്നാമത് അതോ ക്ളീൻ ചെയ്ത്ട്ടില്ല ആ

ആ ഓക്കെ അത് നിങ്ങളുടെ കാര്യം നിങ്ങൾ ക്ളീൻ ചെയ്യുന്നുണ്ടെന്ന് പറയും പക്ഷേ നമ്മൾ അവിടെയിരുന്നിട്ട് നമുക്ക് ആ ടേബ്ൾ മൊത്തമായിട്ട് ആകെ വൃത്തികേടായി കിടക്കുകയായിരുന്നു ഒന്നാമത് അത് പോട്ടെ പിന്നെ കൊണ്ട് വരുന്ന ഫുഡാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡാണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കും ഫുഡിലെന്താ നിങ്ങൾ ആകെ ഞാൻ ആ നോക്കുമ്പോൾ ചായയിൽ വരെ ഈച്ചയും കാര്യങ്ങളൊക്കെ ചാടി ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അത് കംപ്ലെയ്ൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടത്തെ സപ്പ്ളെയറെ വിളിച്ചു വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ മൈൻറ്റിൽ ഞങ്ങൾ മുതലാളിയോട് സംസാരിക്കാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യും നല്ല അതാണ് ഇതാണെന്നൊക്ക പറയുന്നുണ്ടായിരുന്നു ഓക്കെ അതാണ് ഞാൻ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ അവിടെ കേൻറ്റീൻൽ ഭക്ഷണം കഴിക്കാൻ വരുന്നു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡ് കഴിക്കാനും നല്ലത് കഴിക്കാൻ വേണ്ടിയിട്ടുമാണ് വരുന്നത് നിങ്ങൾ ഇങ്ങനെയാണ് സർവ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിച്ച് അവിടന്ന് ഭക്ഷണം കഴിക്കുക നിങ്ങളൊന്ന് പറയു ഇങ്ങനെ ഉണ്ടാകാൻ ചാൻസില്ലാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് സംഭവിച്ചതാണ് ഇതിപ്പോൾ വേറെ എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ടാകും അവർ അത് പുറത്ത് പറയുന്നില്ലാന്ന് ഉണ്ടാകുള്ളൂ പക്ഷേ നമുക്ക് അത് കണ്ടോണ്ട് നമുക്ക് മടിച്ചിരിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെയാണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ കംപ്ലെയ്ൻറ്റ് പോകും ഉറപ്പായിട്ടും അതെ ഇനി ഈ അതെ ആ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ അത് കംപ്ലെയ്ൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ് കാരണം വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അത് ആക്സെപറ്റ് ചെയ്യാൻ പറ്റില്ലറ്റില്ല ഒന്നാമത് ഒന്നാമത്തെ കാര്യമതാണ് ഓക്കെ ഓക്കെ ഇതിന് നിങ്ങൾ ഒരാക്ഷൻ എടുക്കകയാണെന്ന് ഉണ്ടെങ്കിൽ അതലോവ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെതായ രീതിയിൽ പോകും ഓക്കെ ഓക്കെ ഞാൻ നിങ്ങളെ ഈ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഓക്കെയെന്നാൽ ശരി